ഞങ്ങളുടെ നാട്ടിൻപുറത്ത് ആരംഭിച്ച് വിജയം വരിച്ച ധാരാളം സംരംഭങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു സംരംഭമാണ് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ഈ കൃഷി ആരംഭിച്ചതോടെ ധാരാളം തോട്ടം തൊഴിലാളികൾ ഈ കൃഷിയിലേക്ക് കടക്കുകയും അതോടൊപ്പം മറ്റു പല വ്യക്തികളും ഇതിൻ്റെ ഫലമായി ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ആരംഭിക്കുകയും ചെയ്തു ഈ സംരംഭത്തിലൂടെ അത്യുൽപ്പാദന ശേഷിയുള്ള ഡ്രാഗൺ ഫ്രൂട്ട് തൈകൾ കർഷകരിലേക്കെത്തിക്കുകയും അതുവഴി കുറഞ്ഞ ചെലവിൽ വലിയ നിലവാരത്തിലുള്ള വിളവ് ലഭിക്കുകയും ചെയ്ത ഒരു സംരംഭമായിരുന്നു ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി വ്യത്യസ്തയിനം ഡ്രാഗൺ ഫ്രൂട്ടുകള് കൃഷി ചെയ്യുകയും കാലാവസ്ഥയ്ക്കനുയോജ്യമായ തരത്തിൽ വളരുന്ന ഡ്രാഗൺ ഫ്രൂട്ടുകള് കൃഷി ചെയ്യുകയും അത് വഴി എല്ലാ ജനങ്ങളിലും ചെറിയ ചെലവിൽ ഡ്രാഗൺ ഫ്രൂട്ടെത്തിക്കുകയും ആ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഗുണനിലവാരത്തെപ്പറ്റി മറ്റുള്ളവര് കൃത്യമായ അവബോധത്തിൽ ഏർപ്പെടുത്തുകയും അതുവഴി കൃഷിയുടെ മെച്ചപ്പെട്ട മേഖലയിലേക്ക് കടക്കുകയും ഇതൊരു വൻ വിജയമാക്കിത്തീർക്കാനും കർഷകർക്ക് കഴിഞ്ഞു ഇതിനെ വിജയിപ്പിക്കുന്നതിന് കൃത്യമായ കർഷകരുടെ കഠിന പ്രയത്നം തന്നെ ഉണ്ടായിരുന്നതെടുത്ത് പറയേണ്ട ഒന്ന് തന്നെയായിരുന്നു അതോടൊപ്പം സഹകരണ മനോഭാവം കർഷകർക്കിടയിലുണ്ടായിരുന്ന സഹകരണ മനോഭാവം കൂടെ ഇത് ഈ സംരംഭത്തിൻ്റെ ഒരു വൻ സംരംഭത്തെ വൻ വിജയമാക്കിത്തീർക്കുന്നതിന് കാരണമായി